മൃഗങ്ങളെ അറുക്കൽ അല്ലെങ്കിൽ കശാപ്പ് ചെയ്യൽ അതൊക്കെ വൃത്തിയുള്ള സാഹചര്യത്തിൽ മാത്രമേ ഇവിടെ നമ്മുടെ വയനാട് ജില്ലയിൽ ചെയ്യുന്നുള്ളൂ അതിപ്പോൾ കോഴിയായാലും പന്നിയായാലും പോത്തായാലും എന്താണെങ്കിലും വൃത്തിയുള്ള സാഹചര്യത്തിൽ മാത്രമേ ചെയ്യുകയുള്ളൂ അപ്പോൾ അതിന്റെ ഗുണം വരുന്ന നിലവാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിരിക്കും കാരണം എന്ന് വെച്ചാൽ അപ്പം നമ്മുടെ മുൻപിൽ നിന്ന് തന്നെയിരിക്കും അതിനെ വൃത്തിയാക്കി നമുക്ക് തരുന്നത് ഇതുവരെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അവർ അപ്പം തന്നെ ഫ്രഷ് കോഴീനെ ആണെങ്കിലും എടുത്ത് അവരതിനെ കൊന്ന് അതിന്റെ തോലൊക്കെ എടുത്തിട്ട് നമുക്ക് നമ്മുടെ മുമ്പിൽ നിന്ന് തന്നെയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ പഴയ സാധനങ്ങളെല്ലാം ഇവിടുന്ന് കളയുക തന്നെയാണ് അവർ ചെയ്യുന്നത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ടുതന്നെ അവിടെ ഒരു ഗുണ ഗുണനിലവാരം മെച്ചപ്പെട്ടത് തന്നെ ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് എന്താണ് പറയുക അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ നല്ലതായിട്ട് തന്നെയാണ് പോകുന്നത്